സാധാരണ മലയാള ഭാഷ ഉപയോഗിച്ച് എഴുതാനാണെനിക്ക് ഏറ്റവും ഇഷ്ട്ടം അതില് ഞാൻ എഴുതിയതില് ഏറെ എനിക്കേറെ ഇഷ്ട്ടമായിട്ട് തോന്നിയത് ഇല്ലെങ്കിൽ ഏറ്റവും നന്നായിയെന്ന് എനിക്ക് തോന്നിയത് ഒരു കവിതയായിരുന്നു രാവണൻ്റെ പ്രണയം എന്ന് പറയുന്നത് അശോകവനികയിൽ ഏകയായിരിക്കുന്ന സീതയെയോട് സീതയെ നോക്കി രാവണൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ സീതേ ഇപ്പോഴ് നിനക്കെന്നോട് ഇഷ്ട്ടം തോന്നുന്നില്ലേ നീ എൻ്റെ പടുരാക്ഷസരൂപമാണോ അതോ പേടിപ്പെടുത്തുന്ന ശബ്ദമാണോ എന്താണ് നിനക്ക് ഇന്ന് പ്രശ്നമായി തോന്നുന്നത് അതോ ഇന്നും നീ രാവണ രാമനെ മറന്നില്ലെ ഇപ്പളും രാമനെ നിനച്ചിരിപ്പാണോ ഇങ്ങനെവരുന്ന ഈ ഒരു ആശയത്തില് വരുന്ന ഒരു കവിതയായിരുന്നു ഞാൻ എഴുതിയിട്ടുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിലേ യഥാർത്ഥ വരികളല്ല ഒരാശയം ഉൾകൊള്ളു ഉൾകൊണ്ടുകൊണ്ടാണ് ഞാൻ ആ കവിതയെഴുതിട്ടുള്ള് ഉള്ളത് എന്നാണ് ഞാൻ ഇവിടെ പ്രസ്താപിച്ചിട്ടുള്ളത്